മലയാള ഭാഷ എന്നു പറയുമ്പോൾ മലയാള ഭാഷ വളരെ വ്യത്യസ്തമായ ഒരു ഭാഷയാണ് അപ്പം അതിൽ ഒരുപാട് രസകരമായ കാര്യങ്ങളും ഒരുപാട് നല കാര്യങ്ങളുമുണ്ട് അതിൽ വളരെ രസകരമായ ഒരു സംഭവമാണ് പഴചൊല്ലുകൾ എന്നുള്ളത് പഴഞ്ചൊല്ലുകൾ ഒരുപാട് പഴഞ്ചൊല്ലുകൾ അതിന് വളരെ വാസ്റ്റായിട്ടുള്ള അർത്ഥവും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സംഭവമാണ് ഈ പഴഞ്ചൊല്ല് എന്നു പറയുന്നത് അപ്പം അതിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് പഴഞ്ചൊല്ലുകളുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഒരുപാട് പഴഞ്ചൊല്ലുകൾ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നുണ്ട് ഇപ്പം മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നൊക്കെ പറയുന്നത് അത് അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നുന്നതെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം നമ്മളൊക്കെ നാട്ടിലൊരു കാര്യം ചെയ്യുമ്പോൾ അത് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അത് ഒരു ഒരു പുതിയ സംരംഭം തുടങ്ങുമ്പോൾ നമ്മൾ നാട്ടിലുള്ള ആളുകൾ അത് പുച്ഛിക്കും അത് ഒഴിവാക്കും അവർക്ക് അതൊരു വലിയ സംഭവമായി തോന്നില്ല പക്ഷെ അതേ സംഗതി തന്നെ മറ്റൊരു നാട്ടിൽ കാണുമ്പോൾ അവ ഭയങ്കര പുകഴ്ത്തലും കാര്യങ്ങളൊക്കെ അപ്പം നമ്മുടെ നാട്ടിലുള്ള സംരംഭത്തെ അവർ അന്ന് വളരെ ഉഷാറാക്കിയിരുന്നെങ്കിൽ നമ്മുടെ നാട് വലിയ അറിയപ്പെടുമായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇവരുടെ ഈ പുച്ഛിക്കലും കാരണങ്ങളൊക്കെ കൊണ്ട് അങ്ങനെ ഒരുപാട് പഴഞ്ചൊല്ലുകൾ ഉണ്ട് ഇപ്പം ഒരുമയുണ്ടെങ്കിൽ ഉലക്കയിലും കിടക്കാം അപ്പം ഒരു വിഷയം ഒരു സംഗതി ഇപ്പം നമ്മൾ ആൾ കൂടിയാൽ പാമ്പും ചാവില്ല എന്നൊക്കെ പറഞ്ഞത് പോലെ ഇപ്പം ഒരുമ ഒരുമ ഉണ്ടെങ്കിൽ ഉലക്കയിലും കിടക്കാമെന്ന് പറയുന്നത് ഒരു അതിൻ്റെ ഒരു അർഥം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്താക്കുക ആ കാര്യത്തിൽ എല്ലാവരും കൂടി ഒരുമിച്ചു ചെയ്യുകയാണെങ്കിൽ ആ കാര്യം വളരെ വൃത്തിയായിട്ട് നടക്കും അപ്പോൾ ഇപ്പോൾ ഒരു നാട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയാണ് അപ്പം ആ പ്രശ്നം കൃത്യമായിട്ട് എന്താണ് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ആ നാട്ടിലുള്ള പ്രമാണിമാരും അവരൊക്കെ ഒരുമിച്ചു കൂട്ടി ആ നാടിൻ്റെ പ്രസിഡൻ്റ് കാര്യങ്ങളോടൊക്കെ സംസാരിച്ചു എല്ലാവരും കൂടി ഒരുമിച്ചു നിന്നു കഴിഞ്ഞാൽ എന്താകും ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ആകും അത് വളരെ വൃത്തിയായിട്ട് സോൾവ് അകും പക്ഷെ ആ സ്ഥാനത്ത് നമ്മൾ കുറേ ആളുകൾ ഗ്രൂപ്പ് തിരിഞ്ഞു കുറച്ചു ആളുകൾ ഇങ്ങനെ വേണം കുറച്ചു ആളുകൾ പറയുന്ന ഇങ്ങനെ വേണം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്താവും അത് ഒരു പൂർണ്ണതയിൽ എത്തുകയും ഇല്ല അതെ പിന്നെ അവസാനം തമ്മിൽ ആ നാട്ടിൽ തന്നെ തമ്മിൽ പ്രശ്നമാവുക അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്കൊക്കെ എത്താനുള്ള ഒരു എന്താണ് വഴിയാണ് അത് അത് അതിനോട് കണക്റ്റഡ ആയിട്ടുള്ളത് തന്നെയാണ് എന്ത് ആൾ കൂടിയാൻ പാമ്പ് ചാവില്ല എന്ന് പറഞ്ഞത് ആളുകൾ കൂടിയാൽ ഒരുപാട് ആളുകൾ അഭിപ്രായം പറയും ഒരാൾ കുറച്ചു കൂടുതൽ പറയും കൊല്ലാം കുറച്ചു കൂട്ടർ കൊല്ലണ്ട എന്ന് പറയും അത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു അവസാനം ആ പാമ്പ് അത് അതിൻ്റെ വഴിക്ക് പോകും അത് രക്ഷപടണം ചിലപ്പം അതിൽ ഉള്ളാളുകൾക്ക് എന്തെങ്കിലും അപായങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിച്ചു കൂടായ്കയും അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാനും സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെ ഒരു മലയാള ഭാഷയിൽ എന്താണ് ഒരുപാട് കാര്യങ്ങൾ രസകരമായ സംഗതികൾ മലയാള ഭാഷയിലുണ്ട്